ഞങ്ങളുടെ ഞങ്ങളുടെ വീട്ടിൽ പശുക്കിടാക്കളാണ് പ പശു പശു ൻ്റെ കുഞ്ഞുങ്ങൾ കുട്ടികളാണ് ധാരാളമായി ഉള്ളത് പശു രണ്ടും മൂന്നും പശു കുട്ടി കിടാങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിന് നമ്മൾ പശുവിന് ആവശ്യമായ പോഷക മൂല്യമടങ്ങിയ പോഷകങ്ങളടങ്ങിയ ആഹാരവും ആ കൃത്യമായ ആരോഗ്യം നോക്കി അതിനെ അസുഖമില്ലാത്ത രീതീലയിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നതിന് നമ്മളെപ്പോഴും ഒരു ഡോക്ടർടെ സാന്നിധ്യം സാന്നിധ്യം ഉണ്ടായിരിക്കും അതിന് പ്രത്യുല്പാദന സമയമാവുമ്പോൾ ഡോക്ടറെ വിളിച്ച് അതിന് ഇഞ്ചക്ഷനും കാര്യങ്ങളും കൊടുക്കും അതുപോലെ തന്നെ അതിനെ എന്താണോ ആവശ്യമെന്ന് നോക്കി അതിന് സംരക്ഷിക്കുവാൻ നമ്മളുടെ ശ്രദ്ധ എപ്പോഴും ഉണ്ടായിരിക്കണം മാത്രമല്ല മൃഗങ്ങളെ കെട്ടുന്ന തൊഴുത്തും പരിസര പ്രദേശങ്ങളും കൊതുകുകളും മറ്റ് ഒ ഒരു ശല്യങ്ങളുമില്ലാതെ അതിന് സംരക്ഷിക്കുകയും വേണം എപ്പോഴും അതിൻ്റെ കൂടെ നമ്മുടെ സമയം ചിലവഴിക്കണം അതിനാവശ്യമായ എല്ലാ കാര്യങ്ങളും കൃത്യതയോടെ നമ്മൾ ചെയ്ത് കൊടുക്കണം പശുക്കിടാങ്ങളെ പഴ അമ്മ അമ്മ പശുവിൻ്റെ പാൽ അതികമായി കുടിച്ച് കഴിഞ്ഞാൽ നല്ല രീതീൽ അത് പശു പശുക്കിടാങ്ങൾ വളർന്നു വരും അത് അധികം പാൽ കുടി എത്രത്തോളം അതിന് കിട്ടുന്നുവോ അമ്മയുടെ പാൽ എത്രത്തോളം കിട്ടുന്നുവോ അത്രയുമായിരിക്കും അതിൻ്റെ ചെറുപ്രായത്തിൽ അതിൻ്റെ ആരോഗ്യം നിലനിർത്തുന്നത് നല്ല രീതിയിൽ കിട്ടുകയാണെങ്കിൽ നല്ല രീതീലുള്ള പശുക്കിടാങ്ങളെ നമുക്ക് ലഭിക്കും വലിയ പശു ആയാലും അങ്ങനെ തന്നെയാണ് അതിന് പോഷക ഗുണങ്ങളുള്ള ഭക്ഷണങ്ങൾ ധാരാളമായി ലഭിച്ചാൽ അത് അതിന് നല്ല രീതീലുള്ള ആരോഗ്യം കിട്ടും അതിന് ആ അധികം രോഗങ്ങളില്ലാതെ സംരക്ഷിക്കുവാനും നമുക്ക് കഴിയും